അധ്യാപകര് സ്കൂളിൽ പഠിപ്പിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ എന്നുള്ളതാണ് അതായത് എല്ലാ മാനുഷിക ഗുണങ്ങളോടും കൂടി ഒരു കുട്ടി വളരേണ്ടത് അല്ലെങ്കില് ഒരു വിദ്യാർത്ഥി വളരേണ്ടത് എങ്ങനെയാണ് എല്ലാം മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് എങ്ങനെയാണ് വളരേണ്ടത് എന്നുള്ളതാണ് സ്കൂളില് പഠിപ്പിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് പലപ്പോഴും സ്കൂളില് നിന്ന് കുട്ടികൾക്ക് കിട്ടാത്തത് അതായത് സിലബസില് ഇല്ലാത്തൊരു കാര്യമാണ് ഇത് പല സിലബസുകൾ പരിഷ്കരിച്ച് ഇപ്പം പുതിയ എജ്യൂക്കേഷൻ സമ്പ്രദായം ഒക്കെ വന്നുകഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും നമ്മളതിൽ ഫോക്കസ്ഡ് അല്ല എങ്ങനെ ഒരു നല്ല മനുഷ്യനാകാം ഒരു കൂടെ കൂടെ ജീവിക്കുന്ന കൂടെയുള്ള അടുത്തിരിക്കുന്ന മനുഷ്യനെ പരിഗണിച്ചു കൊണ്ട് പരിഗണിക്കുന്ന തരത്തിൽ എങ്ങനെ വളരാം എന്നതിനെ പറ്റി പഠിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നല്ല മനുഷ്യനായി ജീവിക്കേണ്ടത് എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് വേണ്ടത് അല്ലേ അധ്യാപകന് ആദ്യം പഠിപ്പിക്കേണ്ടത് അതാണ് അതായത് അക്കാഡമിക് വിഷയങ്ങൾക്കപ്പുറത്ത് എങ്ങനെ ഒരു നല്ല മനുഷ്യനാകാം എന്നതാണ് വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമിടേണ്ട ഒന്ന് അല്ലേ ഇതാണ് ശരി ഇപ്പോൾ കാണുന്നത് ഇത്രയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അക്കാഡമിക് തര തരത്തിൽ തലത്തില് സാങ്കേതിക തലത്തില് വളരെ മികവുള്ള ആളുകളാണെങ്കിലും അവനവനിലേക്ക് തന്നെ ചുരുങ്ങി ചുരുങ്ങി പോകുന്ന ഒരു സ്ഥിതിയാണ് അത് നമ്മുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ കൂടി ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും അധ്യാപകര് സ്കൂളിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ സാങ്കേതിക വിദ്യാഭ്യാസം വേണം എത്തരത്തിൽ ജീവിക്കണം എന്നുള്ളത് പഠിപ്പിക്കണം അതിന്റെ കൂടെ എങ്ങനെ നല്ല മനുഷ്യനാകാം എന്നുള്ളത് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു